അതായത് കൃഷി പല രീതിയിൽ മാറുന്നുണ്ട് പണ്ട് കാലത്ത് എന്ന് വച്ച് കഴിഞ്ഞാൽ നെല്ല് വിതയ്ക്കലും കൊയ്യലും അത് വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു

ഇപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ നികത്തിയിട്ടാണ് ഇവർ പല രീതിയിലും ഇപ്പോൾ റബ്ബർ കൃഷി ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് നിലനിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളും അതുപോലെ തേങ്ങിൻ തോപ്പുകളൊക്കെയാണ് റബ്ബറിൽ റബ്ബറിൻ്റെ വില ഏകദേശം വളരെ ഏറെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ നെൽകൃഷി ആണെന്ന് ഉണ്ടെങ്കിൽ നെൽകൃഷി ഇപ്പം എവിടേയും നമുക്ക് കാണാൻ പറ്റില്ല ഏകദേശം പല സൈഡിലും പോയി നോക്കിക്കഴിഞ്ഞാൽ തൃശൂർ പാലക്കാട് ആ ഒരു ഏരിയാസിൽ മാത്രമേ നമുക്ക് ഈ നെൽകൃഷിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ കഴിയുള്ളൂ അല്ലാത്ത സ്ഥലത്തൊക്കെ ഈ തെങ്ങ് ആണെന്നുണ്ടെങ്കിലും റബ്ബറാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിരിക്കും ഇപ്പം തെങ്ങിന് തന്നെ ആണെന്ന് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തെങ്ങിന് നാളികേരത്തിനൊക്കെ നല്ല വില ഉള്ള കാലമാണ് ഇപ്പം അതുപോലെ റബ്ബറിനും ഇതുപോലെ നല്ല രീതിയിൽ വില ആയ സമയത്താണ് ഈ പാടങ്ങളൊക്കെ നികത്തിയിട്ട് റബ്ബർ വെച്ചത് പക്ഷെ ഇപ്പോൾ റബ്ബറിൻ്റെ വില